ഹലൊ ഇതാരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലെ അ ഇതാരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ നിങ്ങൾ പ്രിഫെർ ചെയ്യുന്നത് കാറാണൊ അതോ ഒംനി ആണോ അതോ വാൻ ഏത് വണ്ടിയാണ് നിങ്ങൾ പ്രിഫെർ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ആറ് പേര് ഓക്കെ എന്നാൽ നിങ്ങൾ ഒമിനിയായിരിക്കും കുറച്ചൂം കൂടെ ഇത് കാരണം ആ അല്ലെങ്കിൽ ട്രാവലറിൽ ബെസ്സ് ആണ് നമുക്ക് കുറച്ചു കൂടെ പ്രിഫെർ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ കാറ് കൺജസ്റ്റഡ് ആയിപ്പോകും ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ട് കാറ് ചൂസ് ചെയ്യേണ്ടി വരും അതിലും നല്ലത് ട്രാവലറിലാണ് അതാവുമ്പം നിങ്ങൾക്ക് കുറച്ച് കൂടെ എന്തെങ്കിലും കൊണ്ട് പോവാനുണ്ടെങ്കിൽ അതും വണ്ടിയിൽ വയ്ക്കാൻ സ്ഥലം കാണും നിങ്ങൾക്ക് ഇത്രയും ലോങ്ങ് ആയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കംഫട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും അപ്പം ട്രാവലർ തന്നെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ട്രാവലറിലായിരിക്കും ബെസ്റ്റ് അപ്പം നിങ്ങളെ ടൈമും ഡേറ്റുമൊന്ന് പറയാമോ ആ സമയത്ത് ട്രാവലറിൽ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടേക്കാം ഓ ഓക്കെ അപ്പം ആ ഓക്കെ നിങ്ങൾ തലേ ദിവസം പുറപ്പെടാനാണോ എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് റൂമെടുത്തിട്ട് അങ്ങനെ ആണൊ അതോ രാവിലെ വെളുപ്പിനേ പോരുന്ന രീതിയിലാണോ ഓ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം വെളുപ്പിനേ ട്രാവലറിൽ വിട്ട് ആ എവിടെയാണ് കൃത്യമായി വരേണ്ടതെന്നും നിങ്ങളെ ആരെയാണോ പ്രൈമറി കോണ്ടാക്റ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് നേരത്തെ തന്നെ വന്ന് തരേണ്ടതാണ് അതേപോലെ അഡ്വാൻസും തരേണ്ടതാണ് അപ്പം ജൂലൈ അഞ്ചിലേക്ക് രാവിലെ ആളെ വിട്ടേക്കാം ട്രാവലർ ആണെങ്കിൽ വൺ ണ്ടെ ആണോ നിങ്ങൾ പ്രിഫെർ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോവുന്നുണ്ടോ അതോ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് മാത്രമാണോ ഓക്കെ അപ്പം നമ്മുടെ പെട്രോള് ഇൻക്ലൂഡ് ചെയ്തിട്ട് നാലായിരത്തി അഞ്ഞൂറാകും പിന്നെ അത് നിങ്ങൾ പോകുന്ന ആ അ അടുത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇതിൽ തന്നെ നിൽക്കും വേറെ ജില്ലയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അനുസരിച്ച് കൂടും പിന്നെ എക്സ്ട്രാ പെട്രോളും അത് നിങ്ങളുടെ കൈയിൽ നിന്നായിരിക്കും പോവുന്നത് അതേപോലെ അവരുടെ ബാക്കി പ്രാഥമിക ആവശ്യങ്ങൾക്കും ഫുഡ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾകൊക്കെ അവർ പേർസണലി എടുത്തോളും അത് നിങ്ങൾ ബോതർ ചെയ്യേണ്ട അ അതാണ് ഓക്കെ എന്നാൽ അഡ്വാൻസ്സ് രണ്ടായിരം രൂപയാണ് തരേണ്ടത് ബാക്കി ട്രിപ്പ് കഴിയുമ്പം നിങ്ങൾ ബാക്കി പേയ്മെൻ്റ് നടത്തിയാൽ മതി ഓക്കെ ശരി